നമ്മുടെ വലിയ സർവ്വകലാശാലകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ആ ഗ്രാമീണമേഖലയിൽ നിന്നുള്ള ആളുകൾക്കാണെങ്കിലും തുല്യ അവസരങ്ങൾ നൽകുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരു വേർതിരിവ് നിലനിന്നിരിക്കാം പക്ഷെ ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ ന്യൂ ജനറേഷനിൽ അങ്ങനെയൊരു വേർതിരിവില്ല നമ്മളിപ്പോൾ ഓ ഏത് സർവകലാശാലകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും നമ്മളൊരു അഡ്മിഷൻ എടുക്കുന്നത് നമ്മുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നല്ല മാർക്കുള്ളത് അത് സ്ത്രീ ആണെങ്കിലോ അല്ലെങ്കിൽ ഗ്രാമീണമേഖലയിൽ നിന്നുള്ള ആളാണെങ്കിലോ നമുക്ക് നല്ല മാർക്കുണ്ടെങ്കിൽ നമുക്കവിടെ പ്രവേശനം ഉറപ്പായും ലഭിക്കുന്നതാണ് അതിനു യാതൊരു വിധ തടസ്സവും വരുന്നതല്ല അപ്പോൾ ഗ്രാമീണമേഖലയിൽ നിന്നുള്ള ഒരാളാണെന്ന് കരുതി നമ്മളവിടെ ഒരിക്കലും മാറ്റി നിർത്തപ്പെടുന്നില്ല നമുക്ക് നല്ല മാർക്കുണ്ടെങ്കിൽ നമുക്ക് ഒ ഉറപ്പായും നമുക്ക് ആ കോളേജിൽ പ്രവേശനം ലഭിക്കുന്നതാണ് പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകൾക്കാണെങ്കിൽ ഒരു പരിഗണനയാണ് ലഭിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പരിഗണന ലഭിക്കുന്നുണ്ട് കോളേജുകളിലും സർവകലാശാലകളിലും അതാ അതുപോലെ ധാരാളം അവസരങ്ങളും നൽകുന്നുണ്ട്